ഹലോ ആര്യ ഡോക്ടർ ആണോ വെറ്ററിനറി ആ ഓക്കെ ഡോക്ടർ എൻ്റെ പേര് ഡെയിൽ എന്നാണേ അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീട്ടിലെ ഒരു ഒരു ക്യാറ്റ് ഉണ്ട് പേർഷ്യൻ ക്യാറ്റ് അപ്പോൾ അത് ഒന്നും ഫുഡ് ഫുഡ് കഴിക്കുന്നില്ല ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഒന്നും പഴയൊരു ഉഷാറില്ല പേർഷ്യൻ ക്യാറ്റ്

നമ്മൾ ക്യാറ്റ് ഫുഡ് ഉണ്ടാവുമല്ലോ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതും പിന്നെ ചോറും നമ്മൾ മീൻ ഇതാക്കിയിട്ട് കൊടുക്കും അത് കഴിച്ചോണ്ടിരുന്നതാ ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല ഒരു മൂലയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായി അതൊന്നുമില്ല രോമം നല്ലോണം കൊഴിയുന്നുണ്ട് അത് പണ്ടും ഉണ്ടായിരുന്നു ഇതുവരെ ഞാനൊന്ന് ഇല്ല രോമം സാധാ നോർമൽ ആയിട്ടുതന്നെ പൊഴിയുന്ന ആ ഒരു ലെവലിൽ തന്നെ പോയിരുന്നത് അത് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല അത് മണത്ത് നോക്കുന്നില്ല അത് ചെറുതായിട്ട് അതുണ്ട് അതിന് പാലൊന്നും അത് കുടിക്കുന്നില്ല ഡോക്ടറേ അതുകൊണ്ടല്ലേ വിളിച്ചത് അതൊന്ന് നക്കി നോക്കുന്നുപോലും ഇല്ല അത് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ ഡോക്ടർ